ഇന്ത്യയിലെ ചില അറിയപ്പെടുന്ന യോഗ ഗുരുക്കൾ എന്ന് പറയുന്നത് വിഷ്ണു വർദ്ധന വിവേകാനന്ദ സരസ്വതി യോദ്ധ വർദ്ധന ഇവരൊക്കെ അറിയപ്പെടുന്നതാണ് ഇവരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കാം ആയിട്ടുള്ള യോഗകളാണ് പറഞ്ഞു തന്നിരിക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റഡ് ഇൻഡസ്ട്രീവ് ആയിരിക്കുന്ന ഭയങ്കര കാം ആയിരിക്കുന്ന സെൻസിറ്റീവ് ആയി ചിന്തിക്കാൻ പറ്റുന്ന യോഗകൾ ഒക്കെയാണ് ഇവർ പറഞ്ഞു തന്നിരിക്കുന്നത്